ഞാന് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഒരു സർവീസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് വന്ന വളരെയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ കോവിഡിൻ്റെ ഈയൊരു സമയത്ത് തന്നെ മാസ്ക് ധരിക്കാതാണ് ആ ഡ്രൈവറ് വന്നത് അത് കൂടാണ്ട് ആള് ഇടക്കിടക്ക് തുമ്മുകയും ചുമക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു

സംസാരിക്കുന്നതുമെല്ലാം നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇതൊന്ന് കംപ്ലെയിന്റ് ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതും കൂടാണ്ട് നിങ്ങളുടെ വണ്ടിയുടെ സീറ്റുകളാണെങ്കിലും വണ്ടിക്ക് അകമൊക്കെ ആണെങ്കിലും വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഇതായിരുന്നു ഇതിനു മുമ്പ് ട്രാവല് ചെയ്ത ആളുകള് ഉപയോഗിച്ച ടിഷ്യു അങ്ങനെയുള്ള കാര്യങ്ങള് അത് വെള്ളം കുടിച്ച ബോട്ടില് അതൊക്കെ വണ്ടിയുടെ സീറ്റിന് അടിയിലൊക്കെ കിടപ്പുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഡ്രൈവറുടെ ഈ ഒരു കാര്യം കൃത്യമായിട്ടെന്നെ പരാതിപ്പെടുന്നുണ്ട് അത് ഏറ്റവും ഇതായിട്ട് നിങ്ങള് ഈ ഒരു കോവിഡിൻ്റെ ഈ സമയത്ത് നിങ്ങള് ശ്രദ്ധിക്കണ്ട കാര്യം തന്നെയാണ്